നമ്മൾ നമ്മുടെ പാട്ടും നമ്മുടെ സ്വരത്തെയൊക്കെ നന്നാക്കണമെങ്കിൽ നമ്മൾ നിരന്തരം പാടണം പാടി നമ്മളത് നമ്മുടെ സ്വരത്തെ ക്ലിയർ ചെയ്യണം നമ്മൾ വോയിസ് മോഡുലേഷനക്കെ വരുത്തണം കാരണം ചില പാട്ടുകൾ നമ്മൾ കാസറില് കേട്ട് പഠിക്കുമ്പോൾ അതിൽ ചില വേരിയേഷൻസൊക്കെ വരും അപ്പോൾ നമ്മൾ ആ പാട്ട് എങ്ങനെയാണ് പാടുന്നതെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അവിടെ എവിടെയാണ് നമ്മൾ വോയിസ് കുറച്ച് വരേണ്ടത് കൂട്ടി വരേണ്ടത് അവിടെ എവിടെയാണ് ഫീല് കൊടുക്കേണ്ടത് എവിടെയാണ് നല്ല ഉറച്ച് പാടേണ്ടത് അങ്ങനൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോട് കൂടി നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് നന്നായിട്ട് കൊടുത്താൽ നമ്മൾക്ക് നമ്മുടെ പാട്ടിനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മുടെ സ്വരത്തേം മെച്ച മെച്ചപ്പെടുത്താന് പറ്റും കൂടാതെ നമ്മളീ പറഞ്ഞ കണക്ക് നല്ല ചൂട് വെള്ളം നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്നവരുടെയൊക്കെ സ്വരം പോകുമെന്നൊക്കെയുള്ള ധാരണയുണ്ട് അതുകൊണ്ട് അത് പക്ഷേ അത് ശരിയാണ് നമ്മൾ നമ്മുടെ സ്വരത്തെയൊക്കെ ഒന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ പരിചരിക്കുന്നത് അതുപോലെ വേണം നമ്മൾ നമ്മുടെ തൊണ്ടയെയും നമ്മുടെ സ്വരത്തേയൊക്ക പരിചരിക്കാന് കാരണം നമ്മുടെ തൊണ്ടക്ക് എപ്പോഴും തണുത്ത വെള്ളത്തില് കുളിക്കയും തണുത്ത വെള്ളം കുടിക്കുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പെട്ടന്ന് ഇന്ഫക്ഷനുണ്ടാകും തൊണ്ടക്ക് പഴുക്കും പിന്നെ അവസാനം നമുക്ക് ഒട്ടും പാടാന് മേല നമ്മുടെ സ്വരം പോലും പോകും അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് രാത്രി സമയങ്ങളിലുള്ള കുളി തല നനച്ച് വെള്ളം വ വെള്ളം തലയിൽ വീഴുന്ന എന്ന് വെച്ചാൽ തലനീര് എറങ്ങത്തക്ക രീതിയിലുള്ള ആ തലയൊക്കെ നന്നായിട്ട് തോര്ത്തുക വെള്ളം തലയിലൊന്നും താങ്ങാതിരിക്കാനുള്ള അവസരം കൊടുക്കുക പിന്നെ എപ്പോഴും നല്ല ചൂടുവെള്ളം കുടിക്കുക എപ്പോഴും നന്നായിട്ട് പാടി പാടി കിട്ടുന്ന പാട്ടുകളെയൊക്കെ കൂടുതല് കൂടുതല് പ്രാക്റ്റീസ് ചെയ്ത് ആ വോയിസിനെയൊക്കെ നന്നായിട്ടൊന്നു ക്രമപ്പെടുത്തി നല്ല രീതിയിൽ പ്രാക്റ്റീസോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് പാടാനും സാധിക്കും നമ്മുടെ സ്വരത്തെ നമുക്ക് നന്നായിട്ട് ശുശ്രൂഷിച്ച് നമുക്ക് അതിന്റെ ഭംഗിയില് കൊണ്ട് നടക്കാനും സാധിക്കും